പാമ്പ് കടിയൊന്നും ഏറ്റിട്ടില്ല പാമ്പ് കടിയൊക്കെ നമ്മളെ ഏക്കാതിരിക്കാനായിട്ട് നമ്മുടെ പരിസരം വൃത്തിയാക്കുക അല്ലാണ്ട് ഈ പുല്ലൊക്കെ കൂടുതൽ കിളിർക്കുന്ന കാലമാണ് ആ പുല്ല് പറിച്ചുമാറ്റി നമ്മുടെ പരിസരവും കാട് ഒക്കെ കയറാതെ ആ പാമ്പുകൾക്ക് ഇരിക്കാനുള്ള അവസരം കൊടുക്കാതെ ഇടണം അതുപോലെതന്നെ എലി അങ്ങനെത്തുള്ള സാധനങ്ങളെ പഴത്തിൽ വിഷം മേടിച്ചു വെച്ച് പഴത്തിൽ അടിച്ചു കളയണം അതിനെ പിടിച്ചു കൊ കൊല്ലണം ആ അതുപോലെ തന്നെ എനിക്ക് അതുപോലെ ഓക്കേ അല്ലെ അതുപോലെതന്നെ സുരക്ഷിതമായിരിക്കാനായിട്ട് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്നു വെച്ചാൽ കൊതുക് പെരുത്ത കാലമാണ് കൊതുക് അതുപോലെ കൊതുക് ഉണ്ട് അതു നമ്മൾ കഴിവതും ഞങ്ങളുടെ പേരുടെ കതക് അടച്ചിടും നെറ്റ് പിടിപ്പിക്കും നെറ്റ് പിടിപ്പിച്ചിട്ടുണ്ട് രണ്ടു വാതിൽക്കൊക്കെ നെറ്റ് പിടിപ്പിക്കത്തുള്ളൂ ആ രണ്ടു വാതിൽക്ക് നെറ്റ് പിടിപ്പിച്ച് ബാക്കിയൊക്കെ അടച്ചിടും രണ്ടു വാതിൽ തുറന്നിടും അങ്ങനെ നമ്മൾ ആ കൊതുകിൽ നിന്ന് കഴിവും സംരക്ഷണവും തരും കൊതുകുതിരി വെച്ചു കൊണ്ടാണ് ഇരുന്നത് പക്ഷെ കൊതുകു തിരി ഉള്ളത് നമ്മുടെ കൊച്ചുങ്ങളുള്ള വീടുകളിൽ കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ കുഞ്ഞുങ്ങൾക്ക് അലർജിയൊക്കെ ഉണ്ടാകും ഈ കൊതുകുതിരി വെച്ചു കഴിഞ്ഞാൽ അതു വെക്കാറില്ലായിരുന്നു പിന്നെ ഫാനിടും കുറച്ചൊക്കെ കൊതു മാറും അതുപോലെ തന്നെ ചില സമയത്തു വണ്ടുകളൊക്കെ വരും ആ വണ്ടുകളൊക്കെ വരുമ്പോഴത്തേക്കു നമ്മൾ ചില വണ്ടുകൾക്ക് ചില മരുന്നു സ്പ്രേ ചെയ്യും അതൊക്കെ തളിച്ചു പിന്നെ കൂടുതലും ചെയ്യുന്നത് എന്നായെന്നു ചോദിച്ചാൽ പ്രാണികളൊക്കെ കൂടുതൽ വരാതിരിക്കാൻ പുര വൃത്തിയായിട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആഴ്ചയിലൊന്നു തുടക്കും പുര ബെഡ് ഇതൊക്കെ ഇട്ടു തുടക്കും നമ്മൾ തുടച്ചു വൃത്തിയാക്കി എടുക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയ കുഴപ്പം ഇല്ല പിന്നെ നമ്മൾ ഈ പ്രാണികളൊക്കെയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ പറന്നു വരുന്നതല്ലേ പ്രകൃതി ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന അതിനു ജീവിക്കാനായിട്ട് ഒരു മാർഗ്ഗമായി കരുതി കൊതുക് എന്നു പറയണത് നമ്മൾ കുത്തു നിന്നു പറയും പക്ഷെ ൽ നിന്നു മനുഷ്യൻ്റെ ചോരകൊണ്ടാണ് അതു കഴിയുന്നത് അങ്ങനെയാണ് ദൈവം അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ ആ വിധത്തിൽ അങ്ങനെ മുന്നോട്ടു പോകുന്നു ഞങ്ങൾക്ക് ഇനി കുഴപ്പം ഇല്ലാതെയൊക്കെ ഞങ്ങൾ ഈ പുരയുടെ നെറ്റ് ഒക്കെ പിടിപ്പിച്ച് എല്ലാവർക്കും പറ്റിയാൽ സാദ്ധ്യമാകത്തില്ല എന്നാലും ഭയങ്കര കൊതുകാ ലൈറ്റും ഓഫ് ചെയ്തു ഫാനും ഒക്കെ ഇട്ടൊക്കെ ഇരിക്കും